ഞാൻ പാട്ട് പാടുമ്പോൾ നമ്മളിപ്പോൾ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ താളം പിടിക്കുന്ന ഒരു ഇങ്ങനെ ഇതിന്നാ പോലെ ഇങ്ങനെ കാണിക്കും നമ്മളിപ്പോൾ ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ കോലുകൊണ്ട് കൊട്ടാണിങ്ങനെ മേലോട്ടും താഴോട്ടും കൊട്ടുന്ന രീതിലൊക്കെ കാണിക്കും അതേപോലെ മുഖത്താണെങ്കിൽ നമ്മള് പാടുന്ന സമയത്ത് ഓരോ ആ ഒരു ട്യൂണിനനുസരിച്ച് ആ ഒരു പാട്ടിൻ്റെ ആ ഒരു താളത്തിനനുസരിച്ച് നമ്മളിങ്ങനെ ഒരു എക്സ്പ്രെഷൻ ആ ഒരു ഒരിത് കാണിക്കും ഇപ്പൊൾ മുഖം ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടൊരു എക്സ്പ്രെഷൻ നമ്മള് കാണിക്കും ഇപ്പോൾ കയ്യും കൊണ്ടും അങ്ങനെ കാണിക്കും